ഹലോ ഡോക്ടർ ആ പിന്നെയില്ലേ ഡോക്ടറേ എനിക്ക് പനിയാണേ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ട് പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ വീട്ടിൽ ആർക്കും ഇല്ല എനിക്ക് മാത്രമേ ഉള്ളൂ രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ പാരസിറ്റമോള് മേടിച്ചു കഴിച്ചിരുന്നു പക്ഷെ എന്നിട്ടും കുറവില്ല കാണിച്ചില്ല മരുന്ന് ഗുളിക മേടിച്ചിട്ടേ ഉള്ളൂ പുറമേ നിന്ന് അപ്പം ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ട് ഗുളിക കഴിക്കുമ്പം കുറയും അത് കഴിയുമ്പം പിന്നേയും പനിക്കും ആ ആ ആ ശരി ഡോക്ടറേ ആ പിന്നെ തൊണ്ടവേദന ഉണ്ട് ചെറുതായിട്ട് തണുത്ത ഒന്നും കുടിക്കുന്നില്ല

ആ ആ ഇപ്പം ഈ പാരസെറ്റമോള് തന്നെ കഴിച്ചാൽ മതിയോ

പിന്നെ ചുമ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക്

ആ ആ എന്നാൽ ശരി ഡോക്ടറേ പിന്നെ ആശുപത്രിയിൽ ഇവിടെ അടുത്ത് ആശുപത്രിയിൽ പോയില്ല കാണിച്ചാലോ ഡോക്ടറ് എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക വൈകുന്നേരം വൈകുന്നേരം ഉണ്ടാകുമോ ആ ആ ആ ആ കുറവില്ലെങ്കിൽ ഒന്ന് വന്നു കാണിക്കാം എന്നാൽ ശരി ഡോക്ടറേ